എനിക്കേറെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ എനിക്കേറെ ചെന്നെത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ബാർസലോണ ബാർസലോണയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു നഗരമാണ് ഒരു വമ്പൻ നഗരം ബാർസലോണ ഏറെ ഫുട്ബോൾ പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു നഗരം കൂടിയാണ് ബാർസലോണ ബാർസലോണ എന്ന ക്ലബ്ബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലയണൽ മെസ്സി നെയ്മർ സുവാരസ്സ് ക്സാവി ഇനിയെസ്റ്റ ബുസ്കെറ്റ്സ് പിക്യു തുടങ്ങിയ പ്ലെയേഴ്സ് കളിച്ച ഒരു സ്ഥലമാണ് ബാർസലോണ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒട്ടേറെ പ്രിയപ്പെട്ട സ്ഥലമായി മാറിയത് ബാർസലോണ ക്യാംപ് നൗ എന്ന സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ബാർസലോണയാണ് ബാർസലോണ എന്ന നഗരത്തിലാണ് ആ സ്റ്റേഡിയത്തിൽ മെസ്സി അതുപോലെയുള്ള ബാർസലോണയുടെ വമ്പൻ പ്ലെയേഴ്സ് കളിച്ച സ്റ്റേഡിയമാണ് എനിക്കവിടെ ചെന്നെത്താനും ബാർസലോണയുടെ ഒരു കളി കാണുവാനും അവരുടെ ഒരു മത്സരം നേരിൽ കാണാനും ആ നഗരം ചുറ്റി കറങ്ങാനും ഏറെ താൽപര്യമുണ്ട് എൻ്റെ കുറെ കാലത്തിലെ ഒരു സ്വപ്നമാണ് ബാർസലോണ സന്ദർശിക്കുക എന്നുള്ളത് സ്പാനിഷ് രാജാക്കന്മാരായ ബാർസലോണ അവരെ കാണാൻ ആർക്കാണ് കൊതി ആവാത്തത് ഏതൊരു ഫുട്ബോൾ പ്രേമിക്കും ഒട്ടേറെ സ്വാധീനിക്കുന്ന ഒരു ക്ലബ്ബ് തന്നെയാണ് ബാർസലോണ ഒരു ഫുട്ബോൾ പ്രേമി ഉറപ്പായും ബാർസലോണ എന്ന നഗരത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കും അവിടെ ചെന്നെത്താൻ ചെറിയ രീതിയിലെങ്കിലും ആഗ്രഹം അവൻ ഉള്ളിൽ ഉണ്ടാകും ബാർസലോണ എന്ന നഗരം വളരെയേറെ പുതുമയും മത്സരാജ്ഞവും നിറഞ്ഞ ഒരു നഗരമാണ് ബാർസലോണയിൽ ഏറെ കളിക്കാർ സ്ഥിതി ചെയ്തിരുന്നു അവിടെ അവിടെ ഒരുപാട് പേർ വന്നിരുന്നു ബാർസലോണയിൽ കളിച്ച ഒട്ടുമിക്ക നല്ല പ്ലെയേഴ്സും അവിടെയാണ് നിന്നിരുന്നത് ബാർസലോണയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ നഗരത്തിൽ വളരെയേറെ പുതുമയേറിയ കാഴ്ചകളും ഫുട്ബോൾ എന്ന കായിക ഇനത്തെ ആസ്വദിപ്പിക്കുന്ന കാണിക്കാത്ത രൂപത്തിലായിരുന്നു ഫുട്ബോൾ എന്ന കായിക ഇനത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ ആസ്വദിപ്പിക്കുന്ന വളരെയേറെ കാര്യങ്ങൾ ഉണ്ട് അതുകൊണ്ടുതന്നെയാണ് ഞാനുൾപ്പെടെയുള്ള പലർക്കും ബാർസലോണയെ ഇത്രയേറെ പ്രിയം ബാർസലോണ ഒരു നഗരമാണ് എന്നാൽ ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ നെഞ്ചിനകത്തെ ഒരു ആശയാണ് അവിടെ ചെന്നെത്താൻ ഒരുപാട് കടമ്പകൾ കടക്കണം ബാർസലോണ തീർച്ചയായും അവിടെ ചെന്നെത്താൻ എല്ലാ ഫുട്ബോൾ പ്രേമികളും ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുവട്ടമെങ്കിലും അവിടെയൊന്ന് ചുറ്റിക്കാണാൻ എല്ലാ ഫുട്ബോൾ ആരാധകരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് എല്ലാം ഈ ഒരു ക്ലബ്ബിലെ ക്ലബ്ബിൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ് ആ ക്ലബ്ബ് അവരുടെ വളർച്ചയുടെ രീതിയാണ് ഞങ്ങളെ ആസ്വദിപ്പിച്ചത് അവരുടെ ഓരോരോ അനക്കവും ഞങ്ങളെ ആസ്വദിപ്പിച്ചു അതുകൊണ്ട് തന്നെയാണ് ബാർസലോണ എന്ന നഗരം സന്ദർശിക്കാൻ ഇത്രയേറെ പ്രിയം അവിടെ ചെന്നെത്തി അവരുടെ മത്സരങ്ങൾ കണ്ട് അവരുടെ സ്റ്റേഡിയം സന്ദർശിച്ച് ആ നഗരം സന്ദർശിച്ച് ആ പഴയ പ്ലെയേഴ്സ് കളിച്ച ആ മണ്ണ് കാണാൻ ഒട്ടേറെ ആശയുണ്ട് തീർച്ചയായും അതിന് പ്രതീക്ഷിക്കുന്നു ഒരുനാൾ അത് നടക്കും എന്ന് വിചാരിക്കുന്നു